ഏച്ചീ ഏച്ചീ എന്താ എന്താ ഏച്ചി വേണ്ടേ ആ ഹാ ഹാ സെറ്റ് സാരി ഇതാ ഇപ്പുറത്താണ് ഇങ്ങോട്ടു വന്നോ കേട്ടാ ആ ഹാ ആ ഏതായാലും എങ്ങനെ എങ്ങനെ ഇത് സിൽവർ കളറ് വേണോ ഗോൾഡൻ കളറ് വേണോ അല്ലെങ്കിൽ കളറ് വെറൈറ്റി കളറുണ്ട് അതുവേണോ എങ്ങനത്തെയാണ് വേണ്ടത്

ചെറിയ ബോർഡറുള്ളതാണ് വേണ്ടത് അല്ലേ ആ ഹാ ഹാ എന്നാൽ നമുക്ക് ഇത് ഇങ്ങനെയുള്ള നോക്കിയാലോ ചെറിയ ബോർഡറുള്ള ഇങ്ങനത്തെ ഇത് ഇത് പ്യുവർ കോട്ടനാണ് കേട്ടോ ഇത് നല്ല നല്ല കോട്ടനാണത് എളുപ്പം പൊതുവെ മൂവാവുന്ന മെറ്റീരിയലാണിത്

അപ്പോൾ ഇത് ഇത് ഇതൊരെണ്ണം എടുക്കാം അല്ലേ ഇനി വേറെ എങ്ങനത്തെയാണ് വേണ്ടത് ഇതാ ഇതിനകത്ത് ഇതിൽ ഇതിൽ ഇത് നോക്കിയാല്ലോ നമുക്ക് ഈ മഞ്ഞ ബോർഡർ വരുന്നത് ഇതെടുക്കാമല്ലേ ആ ഹാ ഹാ അപ്പോൾ ഈ രണ്ടെണ്ണം ഇതിന് ബ്ലൗസും അണ്ടർ സ്കേർട്ടുമെല്ലാം വേണ്ടിവരും അല്ലേ ആ ഇതിനകത്ത് ബ്ലൗസ് പീസുണ്ട് ഇല്ല വേറെ കളർ അങ്ങനെയൊക്കെ മാച്ച് ചെയ്തു എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ആ അതിനകത്ത് ബ്ലൗസ് പീസുണ്ട് അതെ അല്ലേ ആ ആ എന്നാൽ അതെടുക്കാം ആഹാ ഇനി വേറെയെന്താണ് വേണ്ടത് നൈറ്റ് ഡ്രെസ്സാണോ നെറ്റി ആയിട്ട് വേണോ അല്ലെങ്കിൽ ജീൻസും അങ്ങനെ പാന്റും ടോപ്പും ടീഷർട്ടുമായിട്ടുള്ളത് വേണോ അതെ അല്ലേ ആ ഹാ ഹാ അതിങ്ങോട്ടുവന്നോ ഇവിടെയാണേ ആ ഇതായിതാണ് എങ്ങനെയുണ്ട് ഈ ഇതാണ് വരുന്നത് ഇതൊന്നു നോക്ക് ഇതിനകത്ത് ഏത് കളറാണ് വേണ്ടത് എങ്ങനത്തെയാണ് വേണ്ടതെന്ന് ഒന്ന് നോക്കുമോ ആ ഈ അതെ അല്ലേ ആ ഹാ ഹാ ഇതാ ഈ ഇത് ഇത് നോക്കിയാല്ലോ ഇതൊരു വെള്ള ഷെയ്ഡിൽ വരുന്നതാണ് ഇതിനകത്ത് നീല കുത്ത് കുത്ത് ഇങ്ങനെയുണ്ട് ഇത് നോക്കിയാല്ലോ വേണ്ട അതെയല്ലേ എന്നാൽ ആ ഒരു ഒരു ഈ ഈ മഞ്ഞയൊക്കെ നോക്കിയാല്ലോ ഇതാകുമ്പോൾ ലൈറ്റ് കളറാണ് ആ ഹാ ഹാ ഹാ ആ എന്നാൽ ഇത് ഇത് ഇതൊരെണ്ണം എടുക്കാമല്ലേ ഒരെണ്ണം ഈ പിങ്കിലെടുത്താലോ ആ ഹാ ഹാ ഇത് കുട്ടിക്കാകുമ്പോൾ കുട്ടിക്കുള്ള നല്ല കുറച്ച് ബ്രയിറ്റ് ഷെയ്ഡാണ് റെഡ് ഷെയ്ഡ് വരുന്നത് ഇത് ഇത് നല്ല ഭംഗി ഉണ്ടാവും ചെറിയ കുട്ടികൾക്കെല്ലാം ഇട്ടാൽ ഇതൊന്ന് നോക്കിയാല്ലോ ആ ഹാ ഹാ ആ ഇനി വേറെ വേറെന്തെങ്കില്ലും വേണോ സിൽക്ക് സാരി വേണം അല്ലേ അത് അത് മുകളിലാണ് അത് അങ്ങോട്ട് മുകളിലേക്ക് കയറിക്കോളൂ ഞാൻ അങ്ങോട്ടെത്താം ആ ഹാ ഇതാ ഇതേയ് ഇങ്ങോട്ടാണ് ഇവിടത്തേയ്ക്ക് കയറിക്കോളൂ ആ ഹാ ആ മുകളിൽ ഇത് ഈ ഈ ഏരിയയിലേക്ക് നടന്നോ കേട്ടോ ഇവിടെയാണ് ഇവിടെയാണ് ഇങ്ങോട്ട് വന്നോളൂ ആ ആ ആ ഇതിനകത്ത് ഏതാണ് വേണ്ടത് കളർ കുടുതലുള്ളതാണ് വേണ്ടത് അല്ലേ ആഹാ എന്നാൽ ഈയൊരു മഞ്ഞ ഷെയ്ഡിൽ എടുത്താല്ലോ

അതെയല്ലേ ആ രണ്ടെണ്ണം എടുക്കാമല്ലേ ആ ആ ആ ഇത് രണ്ടിനും ബ്ളൗസുള്ളതാണ് കേട്ടോ ആ ഹാ ഹാ പിന്നെ ഇതിന് അണ്ടർ സ്കർട്ടും എടുക്കാമല്ലേ പിന്നെ പുതിയ ഒരുപാട് മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ കോട്ടണിൻ്റെ ആണെങ്കിലും ജോർജെറ്റ് അതുപോലെ പിന്നെ സിൽക്ക് മെറ്റീരിയൽസും എല്ലാം ഉണ്ട് ഒന്നു നോക്കിക്കോ ചുരിദാറെല്ലാം അടിക്കാൻ നല്ല സൂപ്പർ സാധനമാണ്

ആ ഹ ഹാ ആ നാളെ വന്നാൽമതി ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഒന്ന് വന്നു നോക്കി നിങ്ങളാകുമ്പോൾ ദിവസവും പോകുന്നതല്ലേ അന്നേരം ഇങ്ങനെ ചുരിദാറെല്ലാം അടിക്കാനെല്ലാം നല്ലതാണ് കേട്ടോ ആ അത് അത് കൗണ്ടറിൽ ഞാൻ കൊടുക്കാം എല്ലാം കൊടുക്കാം താഴേയ്ക്ക് വന്നാൽ മതിയെ ആ ശരി ശരി താഴെത്തന്നെ ശരി